ഞാൻ ഈയിടെ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാന് വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പോള് ഞാൻ ഫ്ലിപ്പ്കാർട്ടില് നോക്കിയപ്പത്തേക്കിനും ഞാൻ വിചാരിച്ച രീതിയിലുള്ള സ്മാർട്ട് വാച്ച് കണ്ടു അപ്പോള് ഞാനത് നോക്കിയപ്പത്തേക്കിനും അത് സോൾഡ് ഔട്ട് ആകാന് വേണ്ടിയിട്ട് കുറച്ച് ടൈമും കൂടെ ഉള്ളായിരുന്നുള്ളു അപ്പോള് ഞാന് പെട്ടെന്നുതന്നെ എനിക്ക് വേണ്ട കളർ ഞാൻ സെലക്ടെയ്ത് ചെയ്തു പിന്നീട് ഞാനത് കാർട്ടില് വന്നിട്ടുണ്ടോന്ന് നോക്കിയപ്പോള് അത് ശരിയായിട്ടുണ്ടായിരുന്നു